അതെ ഇതാരാണ് സംസാരിക്കുന്നത് എ എലിസബത്ത് എവിടുന്നാണ് വിളിക്കുന്നത് എലിസബത്ത് എങ്ങോട്ട് പോവുന്ന വഴിയിലായിരുന്നു ഫോൺ മിസ്സ് ആയി എന്ന് അറിഞ്ഞത് ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നതായിട്ട് ഓർമ്മയുണ്ടോ അതോ മോഷണം പോയതാകാനാണോ ഓ തിരക്കുള്ള ബസ്സ് ആയിരുന്നല്ലേ ആ അപ്പോൾ ആ മിസ്സ് ആയ ഫോണിൽ ഉള്ള നമ്പർ ഒന്ന് പറയാമോ ആ ഓക്കെ ഓക്കെ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഡബിൾ നയൻ ടു ത്രീ ഓ ഇതിപ്പം പുത്തൻ ഫോൺ ആയിരുന്നോ അതോ നമ്മുടെ നോർമൽ ഫോൺ ആണോ ഓ അപ്പം മോഷണം പോയതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ ആ ഞാനപ്പം ഇമ്പ ഇപ്പം തന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങാം ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഫോൺ ഉടനെ തന്നെ കി കിട്ടും ഓക്കെ